നമ്മൾ ഗ്രാമീണ തൊഴിലാളികളായ കർഷകർ തൃപ്തികരമായ തൊഴിലാളികളെ കണ്ടെത്താനും നിലനിർത്താനുമുള്ള വെല്ലുവിളികൾ ഞങ്ങളുടെ ഇതിൽ കൂടുതലാണ് ഇന്നത്തെ കാലത്ത് നിലവിലുള്ള തൊഴിലാളികളുടെ ദിവസക്കൂലി തന്നെ കൂടുതലാണ് കൂടുതലാണ് എന്ന് വെച്ചാൽ ഗ്രാമീണ കർഷകരാണ് അപ്പോൾ അവർക്ക് എന്താ നെൽകൃഷി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അഹ് അവർക്കിപ്പോൾ ചില സ്ഥലങ്ങളിൽ അവർക്കാവശ്യമായ വരുമാനം കിട്ടുന്നില്ല അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് പിന്നെ നമുക്കാവശ്യമായ മീൻഡ്സ് നമ്മള് ചെല്ലുന്ന സ്ഥലങ്ങളിൽ ആളുകളുടെ പെരുമാറ്റവും എല്ലാം അവർക്ക് ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്നുണ്ട് ദിവസക്കൂലിയായാല് അവയ്ക്ക് വളരെയധികം കൊ ചില സ്ഥലങ്ങളിൽ നമുക്ക് കുറവാണ് കിട്ടുന്നത് നമുക്ക് ഒര് തൊഴി തൊഴിലാളികൾ നമുക്ക് അവരുടെ കീഴിൽ പണി ചെയ്യുമ്പോൾ അവര് അവരുടെ അടുത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവക്കടെ കാര്യങ്ങൾ നോക്കണം അല്ലെങ്കിൽ എന്താ പറയണേ അവർക്കടെ അവക്കടെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയും അല്ലെങ്കിൽ എന്താവേണ അവക്കടെ അവക്കടെ ആവശ്യമായ സ് കാര്യങ്ങൾ നമ്മൾ നടത്തിക്കൊടുക്കുകയും ചെയ്യുക അത് നമുക്ക് ചിലപ്പോൾ നമുക്ക് പറ്റിയില്ലാന്ന് വരും പക്ഷെ അതൊക്കെ തരണം ചെയ്ത് പിന്നെ നമ്മൾ മുന്നോട്ട് പോകുകയും ചെയ്ത് അങ്ങനൊരു നമുക്കൊരു ജീവിതത്തിൽ വലിയൊരു വലിയൊരു ഇതിലേക്ക് നമ്മള് പോകുന്നു പിന്നെന്താണ് അത് എല്ലാവർക്കും പറ്റുന്നില്ല എന്താണെന്ന് വെച്ചാൽ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകള് നമുക്ക് വെച്ച് ബുദ്ധിമുട്ടായി നല്ല രീതിയിൽ ചെയ്യുന്നു ചെയ്യണ്ടത് എന്തൊക്കെയാണോ ഇതൊക്കെയാണ് നമുക്ക് എപ്പളും വെല്ലുവിളികൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരുന്നത് ഇന്നത്തെ കാലത്ത് നില നിർത്താൻ ഭയങ്കര പാടാണ് അല്ലെങ്കിൽ ഇപ്പോൾ ആർക്കും ജോലി ചെയ്യാൻ ഒന്നാമത്തെ കേസ് ആർക്കും താൽപര്യമില്ല തൽപര്യമില്ല നമ്മളെ അന്യ സംസ്ഥാനങ്ങളിലുള്ള തൊഴിലാളികള് നാട്ടിലേക്ക് വന്ന് അവര് അവരാണിപ്പം ജോലി ചെയ്യുന്നത് നമ്മുടെ നാട്ടിലുള്ളവരിപ്പം ജോലി ചെയ്തിട്ട് വളരെ മടിയാണ് കുറവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ